അതായത് പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രത്യേക രേഖകളുണ്ട് ആധാർ കാർഡ് ബാങ്കിൻ്റെ നമ്പർ എന്നിവപോലെയുള്ള പ്രധാനമായിട്ടുള്ള കാർഡുകൾ നമുക്കാവശ്യമുണ്ട് അതുപോലെത്തന്നെ ഐഡന്റിറ്റി കാർഡ് വോട്ടർ ഐ ഡി ഇതെല്ലാം നമ്മുടെ ഇന്ത്യയിൽ പൗരത്വത്തെ കാണിക്കുന്നതാണ് ആയതിനാൽ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട രേഖകൾ നമ്മൾ പാസ്പോർട്ട് അപേക്ഷക്ക് വെക്കുന്നതിന് മുമ്പ് കയ്യിൽ കരുതേണ്ടതാണ്